ഞാൻ ദേ ഇവിടെ ഇത്തിത്താനത്ത് കോൺവെൻറിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നതാണേ അപ്പം എനിക്ക് ഇത്തിരി മീനിൻ്റെ കാര്യം ഒന്നറിയാൻ മീനിൻ്റെ കാര്യത്തെ പറ്റി അറിയാൻ വിളിച്ചതാണ് അപ്പോൾ ഒന്ന് എല്ലാ മീനും ഉണ്ടോ അവിടെ എന്തൊക്കെ മീൻ ഉണ്ട് അവിടെ അപ്പോൾ നമുക്കേ ഈ പിന്നെ നമുക്ക് ദിവസവും വേണം അപ്പം അങ്ങനെ കൊണ്ടുത്തരാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരിക്കുമോ ആ വെട്ടിയിട്ട് വെട്ടിത്തന്ന് വിടണേ വെട്ടിത്തന്ന് വിടാതെ ഇരുന്നാൽ ഒരു ആ ആ എന്നാ ഇല്ല ഇല്ല ഇല്ല ഇല്ല നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയി മേടിക്കാൻ ഇവിടെ ആളില്ല അപ്പം പിന്നെ നമുക്ക് നിങ്ങൾ കൊണ്ടുത്തരണം വെട്ടിത്തരണം അപ്പം പിന്നെ പിന്നെ വിലയുടെ ഒക്കെ ഒന്ന് അറിയണം ഇപ്പം മത്തിക്കൊക്കെ എന്നാ വിലയുണ്ട്

ആ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലേ ഏതൊക്കെ മീനൊക്കെ കൂട്ടുമെന്ന് നമുക്ക് അറിയില്ല എന്നാലും ഒരു കാര്യം ചെയ്യ് ഞാൻ ഞാൻ വാട്ട്സാപ്പിൽ വിളിച്ചാൽ മതിയല്ലോ അന്നേരം പിന്നെ ഈ പൈ അത് നമ്മൾ ഗൂഗിൾ പേ ഇട്ടാൽ മതിയല്ലോ പൈസയുടെ കാര്യത്തിന് ആ പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഞാൻ വിളിക്കാമേ അപ്പം ഇപ്പം അവിടെ എന്നാ ഉണ്ട് മീൻ എന്നാ ഉണ്ട്

ആ കേരയാണ് അല്ലേ അത് കുഴപ്പമില്ലാത്ത മീനാണെന്ന് തോന്നുന്നു അല്ലേ പച്ച അല്ലേ ഫ്രഷ് അല്ലേ ഫ്രഷ് ആണോ ആ അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യ് നാല് കിലോ കേര കേര തന്നെ ആയിക്കോട്ടെ ആദ്യം അപ്പം അത് ആ കഷ്ണം ആക്കി നല്ല ഇതായിട്ട് കൊടുത്ത് വിടണേ എന്നാ എന്ന് വെച്ചാൽ ഇവിടെ ഈ വേ വേസ്റ്റ് ഒക്കെ കളയാൻ ഭയങ്കര പാടാണെന്നേ അത് കാരണമാണ് മീൻ വെട്ടി മേടിക്കുന്നത് അത് കാരണം ഏതായാലും കേര തന്നെ കൊടുത്ത് വിട് നാല് കിലോയേ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്യാം പിന്നെ അതിന്റെ ആ ആ നമ്പർ ഒന്നയച്ച് തരണം കേട്ടോ എനിക്ക് അതോ ഈ നമ്പറിൽ തന്നെ അയച്ചാൽ മതിയോ ഈ നമ്പർ ആ ആ ആ എന്നാൽ ഓ ആ എന്നാൽ ശരിയേ ഞാൻ പിന്നെ ഒന്ന് ഇതിന് മുമ്പൊന്ന് വിളിച്ചാൽ മതി ഞാൻ പൈസ ഇട്ടേക്കാമേ ഓക്കെ ഓക്കെ